മാധ്യമങ്ങളിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും മാതൃഭാഷയായ മലയാളത്തിന് വലിയ പ്രാധാന്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല പ്രധാനമായിട്ടും ഇപ്പം സംസാരിക്കുന്നതിൽ ലൊക്കാലിറ്റിയിലേക്ക് മാത്രമല്ല നമ്മൾ മത്സരിക്കുന്നത് നമ്മൾ കോംപറ്റീഷൻ വളരെ വിപുലമാണ് ഇൻറ്റർനാഷണൽ തലത്തിൽ വരെ കോംപറ്റീറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ മലയാളം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഭാഷയാണ് മലയാളി ഉള്ള ഇടത്ത് ഉള്ള വിദേശ രാജ്യങ്ങളിൽ പോലും മലയാളം സംസാരിക്കാനായിട്ട് മലയാളികൾ താല്പര്യപെടുന്നില്ല അതുകൊണ്ട് തന്നെ മലയാളത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും മാധ്യമങ്ങളിലും മലയാള ഭാഷയ്ക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതിൽ വലിയ കാര്യം ഒന്നും ഉണ്ടായിട്ട് തോന്നുന്നില്ല കാരണം മലയാളം അത്ര വലിയ സംഭവമായിട്ട് നമുക്ക് ഓ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ തോന്നാറില്ല കേരളത്തിൽ മാത്രം പ്രയോജനപ്പെടുന്ന ഒരു ഭാഷയാണ് മലയാളം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും മലയാള ഭാഷയ്ക്ക് വലിയ പ്രധാന്യം കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ മാധ്യമങ്ങളിൽ മലയാളഭാഷ കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന അല്ലെങ്കിൽ കേരളത്തിൽ പ്രചാരത്തിലുള്ള മാധ്യമങ്ങളിൽ മാതൃഭാഷ മലയാളത്തിൽ പ്രാധാന്യം കൊടുക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സംതിങ് അതുപോലുള്ള വെബ്സൈറ്റുകൾ ഇതിലെങ്ങും മലയാളത്തിന് കൂടുതലും പ്രാധാന്യം കൊടുത്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള മനസ്സിലാക്കി എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ട് മനസ്സിലാക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മാധ്യമത്തിലും കേരളത്തിലുള്ള മാതൃഭാഷ എന്ന നിലയിൽ മലയാളത്തിന് കേരളത്തിൽ പ്രാതിനിധ്യം പ്രാധാന്യം കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ലാതെ എല്ലാ മാധ്യമങ്ങളിലും കേരളം മലയാളത്തിന് പ്രാതിനിധ്യം കൊടുക്കുന്നതിൽ വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മലയാളത്തിൽ ഉപരിയായിട്ട് ഇംഗ്ലീഷിൽ ലോകഭാഷ ഇംഗ്ലീഷിനാണ് കൂടുതൽ പ്രധാന്യം കൊടുക്കേണ്ടത് എന്നാണ് ചിന്തിക്കുന്നത് മലയാളം മലയാളിപോലും അത് ഉപയോഗിക്കാത്ത ഒരു ഭാഷയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാളത്തിൻ്റെ ഭാഷയുടെ സാംസ്കാരികം പിടിച്ച് നിർത്താണ്ട് മലയാളികൾ പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ്റ് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു